പോഷഹാ പോഷകാഹാരക്കുറവ് ഞങ്ങളുടെ പ്രദേശത്തെ ഒരു പ്രധേ വലിയ പ്രശ്നം തന്നെയാണ് കാരണം പൈസ ഉള്ളവർ പോഷകാഹാരങ്ങൾ ഇഷ്ടം പോലെ കഴിക്കും പൈസ ഇല്ലാത്തവർ പോഷകാഹാരങ്ങൾ കഴിക്കുക കുറവാണ് അതു നമ്മുടെ അത് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരൂ ബുദ്ധിമുട്ടിനെ അനുസരിച്ചിരിക്കും സാമ്പത്തികമായിട്ടുള്ളവർക്ക് ഇഷ്ടം പോലെ പോഷകാഹാരം കഴിക്കാം പറ്റും സാമ്പത്തികമില്ലാത്തവർക്ക് പോഷകാഹാരം കഴിക്കാം പറ്റില്ലയെന്നല്ല കുറച്ചൊക്കെ കഴിക്കും എന്നാലും ഒത്തിരി നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ കുറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും പിന്നെ ശുദ്ധമായ വെള്ളവും നല്ല ഭക്ഷണവും ഒക്കെ ചിലപ്പോഴൊക്കെ നല്ല രീതിയിൽ കിട്ടും വെള്ളം ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടുകയില്ല എന്നാലും വെള്ളമുണ്ടെങ്കിലും തരികയിലാത്ത മനുഷ്യർ ഇന്നത്തെ ലോകത്തുണ്ട് അത് എന്നാ പറയാനാണ് അങ്ങനത്തെ മനുഷ്യർ ഒരുപാട് പേര് ജീവിച്ചിരിപ്പുണ്ട് നല്ല വെള്ളം കിട്ടിയില്ലെങ്കിൽ മനുഷ്യൻ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിയില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ ജീവിച്ചിരുന്നിട്ടെന്താ കാര്യം പക്ഷെ ഇന്നത്തെ ലോകത്ത് മനുഷ്യനൊന്നും അതു ചിന്തിക്കുന്നില്ല പിന്നെ നല്ല വഷ്ണം അത്യാവശ്യം നല്ല ഭക്ഷണമെന്നു പറയാനായിട്ട് അത്ര നല്ല ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല എന്നാലും അത്യാവശ്യം വെജിറ്റബിൾ ഒക്കെ കഴിക്കുന്നുണ്ട് ഇലക്കറികളൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ അത്യാവശ്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് പിന്നേ അത്പോലെ ഇടയ്ക്കൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കും പിന്നേ പിന്നെ എന്താ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും പിന്നേ പോഷകാഹാരങ്ങൾ ഇല്ലെങ്കിൽ പോഷകാഹാരത്തിൻ്റെ അഭ അഭാവത്തിൽ നമുക്ക് എന്തൊക്കെ വരും നമക്കെന്തെല്ലാം അസുഖങ്ങൾ സംഭവിക്കും അതു പോലെ നല്ല വെള്ളം നല്ല വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ മഞ്ഞപ്പിത്തം കോളറാ അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകും അതു പോലെ നല്ല ഭക്ഷണങ്ങളെന്നു പറയാൻ നല്ല നല്ല പച്ചക്കറികൾ കക്കയിറച്ചി അതു പോലെ ഇലകൾ ഇലക്കറികൾ അതു പോലെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ രോഗങ്ങളുണ്ടാകും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കാൽസ്യം അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ രക്തം കുറവ് അങ്ങനെയുള്ള ഓരോരോ അസുഖങ്ങൾ നമുക്കുണ്ടാകും അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ നല്ല അത്യാവശ്യം നല്ല വിഷമടിക്കാത്ത ഇപ്പം എല്ലാ വിഷം അടിച്ചാണ് വരുന്നത് എന്നാലും നമ്മളത്യാവശ്യം പച്ചക്കറികൾ കൊണ്ടു വന്നാലും നമ്മൾ ഒന്നില്ലെങ്കിൽ ചുർക്കാ വെള്ളത്തിൽ കഴുകുകയോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കഴുകുകയോ അല്ലെങ്കിൽ വാളംപുളി ഒഴിച്ച് കഴുകുകയോ ഇച്ചിരി നേരം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അതെല്ലാം എടുത്ത് അരിഞ്ഞ് പാചകപ്പെടുത്തി നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം അതു പോലെ വെള്ളമാണെങ്കിലും നമ്മൾ കഴിയുന്നതും നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാകും ഈ നല്ല ഭക്ഷണവും നല്ല വെള്ളവും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലെന്താണ് നമുക്ക് സംഭവിക്കുന്നത് ഞാൻ ഒരുപാട് പോഷകാഹാരത്തിനു പകരം ഒരുപാട് പോഷകാഹാരത്തിനു പകരം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പോഷഹാഹാരങ്ങൾ എന്നും ഇവിടെ കഴിക്കാറുണ്ട് പച്ചക്കറികൾ നടാറുണ്ട് പയർ അതു പോലെ കോവയ്ക്കാ അതു പോലെ പലതരത്തിലുള്ള പച്ചക്കറികൾ ചീര പാവയ്ക്കാ അങ്ങനെ പലതരത്തിലുള്ള പച്ചക്കറികൾ നട്ട് പാകം ചെയ്യാറുണ്ട്